ആ വരൂ ചേച്ചി എന്താ വേണ്ടത് മൊബൈൽ ഫോണോ ഏത് മൊബൈൽ ഫോണാ വേണ്ടേ സ്മാർട്ട് ഫോണ് വേണോ അതോ സാധാ സ്വിച്ച് ഫോണോ വേണ്ടേ സ്മാർട്ട് ഫോണിപ്പോൾ പുതിയ മോഡലുണ്ട് അതിപ്പോൾ പുതിയ ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ഒരു ഫോണുണ്ടിപ്പോൾ ഐ ക്യു സെറ്റ് സെവൻ പ്രോ ഇണ്ട് അതുപോലെ റി എന്ന് അപ്പോൾ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾക്കിപ്പൊരു നത്തിങ്ങ് ഫോണുണ്ട് ആ നത്തിങ്ങ് നല്ല കമ്പനിയാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ നത്തിങ്ങ് അപ്പോൾ നത്തിങ്ങിൻ്റെ സാംസങ്ങിൻ്റെ സാംസങ്ങ് ഗാലക്സി എസ് റ്റൊന്റി ത്രീ അൾട്ര ഉണ്ട് അത് മുപ്പത്തയ്യായിരത്തിന് കിട്ടും ആ പിന്നെ റിയൽ മീടെ ഫോണുണ്ട് റിയൽ മീ ഇലവൻ പ്രൊ പ്ലസ് ഫൈവ് ജി ഉണ്ട് അതായത് നല്ല ക്യാമറയൊക്കെയുള്ള ഒരു ഫോണാണ് പിന്നെ വിവോൻ്റെ ണ്ട് വിവോ സെറ്റ് സെവനുണ്ട് ആ വിവോയിൽ ക്യാമറ ക്ലാരിറ്റി നല്ല ക്ലാരിറ്റിയുള്ള ഫോണാണ് വിവോ നമ്മുടെ ഇന്ത്യൻ കമ്പനി തന്നെയാണ് ഇതിലൊരു അറുപത് മെഗാ പിക്സൽ ക്യാമറൻ്റെ ബായ്ക് ക്യാമറയാണ് ഉള്ളത് ഫ്രണ്ട് ക്യാമറ ഒരു പതിനാറ് മെഗാ പിക്സലുണ്ട് നല്ല ക്ലാരിറ്റിയുള്ള ഫോണാണ് നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി നല്ല ആൻഡ്രോയ്ഡ് ഡിസ്പ്ലേയൊക്കെയാണ് ആ ഇതിൽ ഡിസ്പ്ലേ വന്നിട്ട് ആൻഡ്രോയ്ഡ് ഡിസ്പ്ലേയാണ് നമ്മുടെ രണ്ട് സൈഡും കർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും ഇപ്പം നമുക്ക് നല്ല ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര സ്മൂത്താരിക്കും വീഡിയോസൊക്കെ കാണാനും നല്ല രസമായിരിക്കും അത് ലൈറ്റ് വെയ്റ്റാണ് രണ്ട് ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്നും കർവ്ഡാണ് അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഉപയോഗിക്കാനൊക്കെ കൈ പിടിക്കുമ്പം ഒക്കെ ഒരു ഇല്ലില്ല ഹാങ്ങാവൊന്നുമില്ല നമുക്കിപ്പൊരു സ്മാർട്ട് ഫോൺ എങ്ങനെയും ഒരു രണ്ട് കൊല്ലമൊക്കെയാണ് നമുക്ക് ഹാങ്ങാവാണ്ട് തീരെ ഹാങ്ങാവാണ്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റും അതിനുശേഷമൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തായാലും ചെറിയ ഹാങ്ങൊക്കെ ഉണ്ടാകും എങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് കൊല്ലമൊക്കെ സുഖമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹാങ്ങൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും ഇല്ല ഇത് ചൂടാകുന്ന പ്രശ്നമൊന്നുമില്ല ഒന്നാമത് നമ്മൾ അങ്ങനെ ബാറ്ററിക്കുള്ള കംപ്ലൈന്റ്റ് വരുമ്പോഴേ ഫോൺ ഹീറ്റാകുള്ളൂ ഇതിലീ എക്സ്ട്രാ കൂൾ സിപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഫോൺ ഓട്ടോമാറ്റിക്കലി ഫോൺ തണുപ്പിക്കും ചൂടാകുമ്പോൾ തണുപ്പിക്കും അങ്ങനെയുള്ള കൂൾ സിപ്പൊക്കെയുണ്ട് ഇതിൽ അങ്ങനെയുള്ളതൊക്കെയുണ്ട് ഇതിലിപ്പോൾ നല്ല ഫോണെന്ന് പറയുന്നത് വിവോൻ്റെ ഫോണും നല്ലതാണ് സാംസങ്ങിൻ്റെ ഫോണും നല്ലതാണ് ഐ ക്യു നല്ലതാണ് ഇതിനെല്ലാം നല്ല ക്യാമറ ക്ലാരിറ്റിയുള്ള ഫോണുകളാണ് അതുപോലെ പുതിയ ലേറ്റസ്റ്റ് പ്രൊസസ്സർ ആണ് ഉപയോഗിക്കുന്നത് അതിൽ എല്ലാറ്റിലും ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട് അറുപത്താറ് വാട്ട് ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിലൊക്കെ നൂറ് ശതമാനം ചാർജ്ജാകും അതുപോലെ നല്ലൊരു ബേറ്ററി ബാക്ക് അപ്പും ഉണ്ട് വൺ ഡേയൊക്കെ സുഖമാണ് ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ചാർജ് ഉപയോഗിക്കാം അതുപോലെ എല്ലാം ഫൈ ജിയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ഫൈ ജി നെറ്റ് വർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ജീയോൻ്റെ ഒക്കെ സിം ഉണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡും ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടും ഇതിന് മുപ്പത്തയ്യായിരം നമ്മൾ പിന്നെ അതിന് ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തരാം ആ ഡിസ്കൗണ്ട് ചെയ്തു തരാം ഇതിൻ്റെയൊപ്പം നമുക്ക് വേണമെങ്കിൽ ഹെഡ് സെറ്റ് നമുക്ക് ഒരു ഹെഡ് സെറ്റ് കൊടുക്കുന്നുണ്ട് ഫോണിൻ്റെ ഒപ്പം നമ്മൾ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതു കൊണ്ട് നമ്മൾ ഒരു ഹെഡ് സെറ്റും ഒരു സെൽഫി സ്റ്റിക്കും കൊടുക്കുന്നുണ്ട്

ആ ഇത് നല്ലൊരു ഫോണാണ് വിവോ വിവോൻ്റെ ഷോട്ട് ഫോൺ പോരെ ഓക്കെ ആ പേമെൻ്റ് എങ്ങനെയാണ് ഗൂഗിൾ പേയാണല്ലേ ഓക്കെ ഇതിൽ ഗ്ലാസ് ഗാർഡ് ഒട്ടിക്കണോ ഗ്ലാസ്സ് ഗാർഡും പൗച്ചും വേണോ ഓക്കെ ശരി